എൻ്റെ അടുത്ത് സംബന്ധിച്ച് എനിക്കങ്ങനെ ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ എനിക്കങ്ങനെ അഡ്വൈസ് തരാൻ ആരും തന്നെ ഇല്ലായിരുന്നു ഇതെനിക്ക് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നൊരു സ്കില്ലാണ് ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് എഴുതുമ്പം എനിക്ക് അമ്മ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പം അമ്മ ഒരു ഒരു റോൾ മോഡലായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട് അതല്ലാതെ പിന്നെ എഴുത്തൊക്കെ ഞാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നു എഴുതി തുടങ്ങിയതാണ് എങ്കിൽ പണ്ട് സിനിമകളോ അല്ലെങ്കിൽ നോവൽസെനിക്ക് പണ്ട് എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റുള്ള സംഭവമായിരുന്നു അപ്പം അത് എനിക്കത് ഞാൻ അതു വായിച്ച് തുടങ്ങിയപ്പം അത് എനിക്കും ഇത് തുടങ്ങിയതെന്നു വെച്ചാൽ ഞാനൊരു പണ്ടൊരു ചീത്ത കഥ എഴുതി വായിച്ചു ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതെനിക്ക് ഒന്നിച്ചിരിയും കൂടെ ഭേദമായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള ഒരു ഒരിത് തോന്നി അങ്ങനെ അങ്ങനെയാണ് ഞാൻ എഴുത്തിലോട്ട് വരുന്നത് എന്നുവെച്ചാൽ എനിക്കത് അത് അതിലും ഭേദമായിട്ട് എനിക്കെഴുതാൻ പറ്റിയില്ല പക്ഷെ അങ്ങ് അത് ആ ഒരു ഒരു ആ ഒരു ഐഡിയ തലയിൽക്കയറി വന്നപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് കയറി വന്നത് അത് തുടങ്ങിയതിൽ പിന്നെ ഞാൻ പിന്നെ